ആദ്യമേ തന്നെ ആ പട്ടിക്ക് വിഷമുള്ള പട്ടിയാണോ കടിച്ചത് പേ ആണോ അതിനു ഉണ്ടായിരുന്നതാണോ എന്നുള്ള നമ്മൾ ആദ്യമേ അന്വേഷിക്കും പിന്നെ നമ്മൾ ഉടനടി നമ്മൾ എന്തു ചെയ്യുമെന്നു വെച്ചാൽ ആ കുട്ടിയെയും കൊണ്ടു നമ്മൾ പിന്നെ ഇൻജക്ഷൻ എടുക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടീനെയും കൊണ്ട് നമ്മൾ പോയി ഇൻജക്ഷൻ എടുക്കും പിന്നെ ആ പട്ടിക്ക് പേ ഉള്ള ആണോയെന്നു നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളത് നമുക്ക് മനസ്സില്ലാക്കാൻ പറ്റും പേ ഉള്ള പട്ടിയാണോ അതോ ഇല്ലാത്ത പട്ടിയാണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുന്നോട്ടുള്ള കാര്യത്തിനു തീരുമാനമെടുക്കും